സംസ്ഥാന സർക്കാറിൻ്റെ സംസ്ഥാന സർക്കാർ അഴിമതിയും സുതാര്യതയും സംബന്ധിച്ച പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അവരുടെ മേൽ നോട്ടത്തിൽ തന്നെ അതായത് അവരുടെ കീഴിലുള്ള അവിടെ തന്നെയാണ് അവര് കേന്ദ്രീകരിക്കേണ്ടത് അതിന് അവരുടെ പ്രവർത്തനം ഏത് രീതിയിലാണ് പോകുന്നത് എന്നൊക്കെയാണ് ആദ്യം കൈകാര്യം ചെയ്യേണ്ടത് അവര് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതാണോ എന്ന് നോക്കുക കുറച്ച് പിന്നേ സർക്ക് ഗവൺമെൻറ് സർക്കാർ കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ടോന്ന് നോക്കണം അതാണ് മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് ജനങ്ങൾ ജനങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് സർക്കാർ ഉത്തരവിറക്കി ഉത്തരവ് പൊതു ജനങ്ങൾക്കെടയിൽ ഉളവാക്കുന്നുണ്ടോ എന്ന് തന്നെ ആദ്യം ചർച്ച ചെയ്യുക അത് എങ്ങനത്തെ രീതിയിലാണ് പോകുന്നത് എന്നൊക്കെ ചർച്ച ചെയ്യുക പിന്നെ പിന്നെ ഒരു ലേലത്തിൻ്റെ എത്തി വിവിധ ഘട്ടങ്ങളിൽ നിരീക്ഷിക്കാൻ പ്രാപ്തരാവുന്നുണ്ട് ലേലത്തിൻ്റെ ഏജൻസികളെ പൗരന്മാരെയും വിതരണക്കാരെയും പൊതു ഏജൻസികളെയും ലേലത്തിൽ വിവിധ ഘട്ട നിരീക്ഷിക്കാൻ പ്രാപ്തരാക്കുന്നുണ്ട് എന്നാലൊക്കെയാണ് അഴിമതിയില്ല എന്ന് ഉള്ള രീതിയിൽ പോവുക അതായത് ഗവൺമെൻറ് സർക്കാർ കൊടുക്കുന്ന കാര്യങ്ങൾ അതേപോലെ ജനങ്ങളിലേക്ക് എത്തിക്കുക